ഇവിടെ ഒത്തിരി ആർട്ട് സ്പേസ് സ്റ്റോർ ഉണ്ട് പിന്നെ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങുന്നതൊക്കെ പറയുവാണെങ്കിൽ പേനകൾ ലേഖന സാമഗ്രികൾ കടലാസുകൾ മഷികൾ പെൻസിലുകൾ അതൊക്കെയാണ് വാങ്ങാറുള്ളത് കരകൗശലത്തിൽ കരകൗശലം എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ ഒത്തിരി കലകളും കലാസൃഷ്ടികളും ഉണ്ട് വിവിധങ്ങളായ മനുഷ്യ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന ഒരു പദം തന്നെയാണ് കല ചിരട്ടയിൽ ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ കരകൗശലം കൈകൾ കൊണ്ട് തന്നെ രൂപകൽപ്പന ചെയ്തു നിർമ്മിക്കുന്നതല്ലേ അതിനല്ലേ കരകൗശലം എന്നു പറയുന്നത് തന്നെ പാളയിൽ നിന്ന് പാത്രങ്ങൾ ഉണ്ടാക്കുക ചിരട്ടയിൽ നിന്ന് പലതരം പലതരം കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാളയിൽ നിന്ന് പാത്രങ്ങൾ ഉണ്ടാക്കുന്നതാണ് ചിരട്ടയിൽ നിന്ന് മൺചട്ടികളായും പലതരം പൂക്കളായും ചിരട്ടയെ കൊണ്ട് തന്നെ പലതരം കലാസൃഷ്ടികൾ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്